ഹലോ

എന്താണ് ഇവിടെ കുറുവയരിയുണ്ട് ജയ അരിയുണ്ട് ആധിപനുണ്ട് സിൽക്കിയുണ്ട് ഏതൊക്കെ അരിയാണ് വേണ്ടത് ബസ്മതി റൈസുണ്ട് ബസുമതി റൈസ് നൂറ്റിപ്പത്ത് രൂപ ഏത് ആ ഉണ്ട് റേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് പറയാം ആ നിങ്ങളുടെ സ്ഥലം സ്ഥലം എവിടെയാണ് ആ ഉണ്ടാകും നിങ്ങളുടെ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയച്ചുതന്നാല് ഞങ്ങള് അങ്ങോട്ട് എത്തിച്ചുതരാം കുറവ നാല്പ്പത്തിരണ്ട് ആ ലൊക്കേഷൻ അയച്ചുതന്നാല് സാധനം എത്തിക്കാം പിന്നെ വേറെന്തൊക്കെയാണ് വേറെ എന്താണ് വേണ്ടത് അരി മാത്രം മതിയോ

ആ ആ ആ റേറ്റൊക്കെ ഓക്കെയാണെങ്കില് നിങ്ങള് പിന്നെ ഇത് നിങ്ങളുടെ ആ

ഏ അഡ്രസ് അയച്ചുതരുമോ ആ ഡെലിവറി ആക്കും നിങ്ങള് പിന്നെ ഇതൊക്കെ അയച്ചുതന്നാല് ഞങ്ങള് അങ്ങോട്ട് എത്തിച്ചുതരാം ഓക്കെ എന്നാല് താങ്ക്സ്